താങ്കൾക്ക് ബുക്ക് വായിക്കാൻ ഇഷ്ടമാണല്ലോ അപ്പോൾ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് അത് ഞാൻ കൊച്ചിലെ ഇതിങ്ങനെ ധാരാളം ബുക്ക് വായിക്കുന്നൊരാളാണ് എനിക്ക് തോന്നുന്നു ഞാനാദ്യമായിട്ട് ബുക്ക് വായിക്കാൻ തുടങ്ങിയത് ഞാൻ ഏയ്ത്തിൽ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു അപ്പോൾ അന്ന് തൊട്ടിങ്ങനെ ഞാനൊരുപാട് ബുക്സസ് വായിക്കാറുണ്ടായിരുന്നു അപ്പം ആ കാലത്ത് ഞാൻ ഏറ്റോം കൂടുതൽ വായിക്കാൻ വായിച്ച് തുടങ്ങിയ ബുക്ക് എന്നെ ജേ ക്കെ റൗളിങ്ങിന്റെ ഹാരി പോട്ടറാണ് ആ ബുക്കാണെന്നെ ബുക്ക് വായിക്കാൻ കൂടുതൽ പ്രേരിപ്പിച്ചത് ഇപ്പം ഹാരി പോട്ടർന്റെയാണങ്കിൽ ഞാനിങ്ങനെ കാത്തിരിക്കുവായിരുന്നു അടുത്ത ബുക്ക് കാരണം ആ സമയം അതിന്റെ ലാസ്റ്റ എഡിഷൻ ഇറങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളു ഭയങ്കര ആകാംക്ഷയായിരുന്നു ഞാനെല്ലാ ബുക്കും വായിച്ചിട്ട് പിന്നുവത് വായിക്കും കാരണം അങ്ങനെ വായിക്കുമ്പം അതിന്റെ എല്ലാ ഡീറ്റെയ്ലായിട്ട് നമുക്കറിയാൻ പറ്റും ആദ്യം വായിച്ചതിൽ വിട്ടുപോയതാണെങ്കിലും ചെറിയ ചെറിയ മൈന്യുട്ട് ഡീറ്റെയിൽസ്സ് ഇങ്ങനെ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ നമുക്ക് കിട്ടും പിന്നെ അവസാനത്തെ ബുക്ക് വായിച്ചു അതും അതൊരു നല്ല എക്സ്പീരിയൻസാണ് അപ്പം ആര് ചോദിച്ചാലും എനിക്ക് പെട്ടെന്ന് ഞാനൊരു ബുക്ക് റെക്കമെന്റ് ചെയ്യുന്നെങ്കിൽ അത് ഹാരിപ്പോട്ടറായിരിക്കും ആൾക്കാർക്ക് ഈ ബുക്കിനെപ്പറ്റി പല അഭിപ്രായങ്ങൾ കാണാം കുട്ടികളുടെ ബുക്കാണ് ഫാന്റസിയാണ് മിസ്റ്ററിയാണ് ഇത് റിയാലിറ്റി അല്ല എന്ന് പറയുന്നത് പക്ഷേ ഒരു കാര്യം ആലോചിച്ചാൽ റിയാലിറ്റീത്തന്നെ വായിക്കണം എന്നില്ലല്ലോ ഇപ്പം നമ്മളെ നമുക്ക് ഒരു ചുമ്മാ റിലാക്സായിട്ടിരിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ ത്രില്ലിങ്ങായിട്ട് ത്രില്ലേഴ്സിഷ്ടവുള്ളവർക്കൊക്കെ വായിക്കാൻ പറ്റുന്നൊരു ബുക്ക് തന്നെയാണ് ഹാരി പ്പോട്ടർ പിന്നെ അതിനുശേഷം അതുപോലെ മിസ്റ്ററി വായിച്ചിട്ടുള്ളത് ഹങ്കർ ഗെയിംസാണ് ഹങ്കർ ഗൈമ്സുമെനിക്ക് അങ്ങനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ് ഹങ്കർ ഗെയിംസ് അതുമിങ്ങനെ കാത്തിരുന്ന് കണ്ടൊരു വായിച്ചൊരു ബുക്ക് തന്നെയാണ് ഹങ്കർ ഗെയിംസും പിന്നെ അതുപോലെ ഇതുപോലെ ത്രില്ലേഴ്സെനിക്ക് വായിക്കാൻ നല്ലിഷ്ടമാണ് അപ്പോൾ അതുപോലെ വായിച്ചതാണ് ഗേൾ വിത്ത് എ ഡ്രാഗൺ ടാറ്റു അതും ഇങ്ങനെ എനിക്കിങ്ങനെ സീക്വൽസുള്ള ബുക്സക്കെ വായിക്കുന്നത് നല്ലിഷ്ടവാണ് അപ്പം അങ്ങനെ അത് മാത്രം വായിക്കും എന്നല്ല എന്നാലും ഇങ്ങനെ ഇനി എന്താകും ഇനിയെന്താണ് എന്നൊക്കെ അറിയാൻ ഭയങ്കരിഷ്ടവാണ് അങ്ങനെ വായിച്ചൊരു ബുക്കാണ് ഗേൾ വിത്ത് എ ഡ്രാഗൺ ടാറ്റും പിന്നെ അതിന്റെ കൂടെയുള്ള രണ്ട് ബുക്സും ഇത് മാത്രമല്ലാതെ ഇന്ത്യൻ ഓതേഴ്സിന്റെ ബുക്കും വായിക്കാറുണ്ട് ഇന്ത്യൻ ഓതേഴ്സിൽ ഞാനാദ്യമായിട്ട് വായിച്ചത് എല്ലാവരും വായിക്കുന്ന പോലെ ചെ ചേതൻ ഭഗത് തന്നെയായിരുന്നു എനിക്ക് ചേതൻ ഭഗത്തിന്റെ റൈറ്റിങ്സ്സ് വളരെ ഇഷ്ടവാണ് കാരണം അതെന്ന് വെച്ചാൽ നമുക്കൊരു സാധാരണ ഒരു ഇന്ത്യൻന് വായിക്കാൻ പറ്റുന്ന പോലത്തെ റൈറ്റിങ്ങും ബുക്ക്സുമാണ് പിന്നെ ഞാൻ പഠിച്ച സ്കൂളിൽ അല്ല ഞാൻ മൂന്ന് വയസ്സ് തൊട്ട് ഹിന്ദി പഠിക്കുന്നുണ്ട് അതിലെഴുതിയേക്കുന്ന ഹിന്ദി വാക്കുകളും എനിക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു അതുമാത്രമല്ല എനിക്ക് ആ ബുക്സിലെഴുതീരിക്കുന്നത് റിലേറ്റ് ചെയ്യാനും പറ്റുവായിരുന്നു അങ്ങനെ ഞാനങ്ങനെയാണ് ചേതൻ ഭഗത്തിന്റെയൊരു ഫാനായത് എനിക്ക് ഇഷ്ടപ്പെട്ട ചേതൻ ഭഗത്തിന്റെ ബുക്ക് ത്രീ മിസ്റ്റേക്ക്സ് ഓഫ് മൈ ലൈഫാണ് അതിങ്ങനെ ഫ്രെണ്ട്ഷിപ്പിന്റെ കഥയും പിന്നല്ലാതെ ണ്ടാവുന്ന ഈ ഡൈവേഴ്സിറ്റിസിന്റെടയിലുള്ള ഫൈറ്റും പിന്നെ അതിൽ നിന്ന് നമ്മൾ ഹാർമണി കൊണ്ടു വരുന്നതും ഒരു കൊച്ച് കുട്ടീടെ കഥയും അങ്ങനെയെല്ലാം തിരിഞ്ഞ് ഒരു മിക്സാണ് ആ ബുക്ക് പിന്നതിൻറ്റൊപ്പം റൊമാൻസുണ്ട് ഫ്രെണ്ട്ഷിപ്പുണ്ട് ആൾക്കാരുടെ ലൈഫിന്റെയൊരു ചേഞ്ചസ്സ് കാണാൻ പറ്റും അവർ സ്കൂൾൽ പഠിക്കുന്ന ഫ്രെണ്ട്സും പിന്നെ കോളേജിലാവുന്ന ഫ്രെണ്ട്സും പിന്നവരഡൾട്ട്ഹുഡ്ഡിലോട്ട് പോകുന്നതും അങ്ങനെല്ലാം കൂടെ ചേർന്നെനിക്ക് ത്രീ മിസ്റ്റെക്സ് നല്ല ഇഷ്ടവാണ് പിന്നെ എനിക്ക് ത്രില്ലേഴ്സിഷ്ടവുള്ളൊരു വ്യക്തി ആയോണ്ട് ചേതൻ ഭഗത്തിന്റെ ത്രില്ലേഴ്സും എനിക്കിഷ്ടമാണ് ഇപ്പം വൺ അറേഞ്ച്ട് മാര്യേജ് അതിനിങ്ങനെ വെട്ടീട്ട് അറേഞ്ച്ഡ് മാഡെർ എന്നുള്ള ആ ബുക്കും പിന്നെ ഗേൾ ഇൻ റൂം വൺ നോട്ട് വൺ ആണെന്ന് തോന്നുന്നു ഇത് രണ്ടും എനിക്കതുപോലിവുള്ളൊരു ബുക്കാണ് അപ്പം ചേതൻ ഭഗത്തും എന്റെ ഇന്ത്യൻ റൈറ്റേഴ്സിലെൻറ്റൊരു ഫേവറെറ്റ് റൈറ്ററാണ് പിന്നതുപോലെ തന്നെ ഇൻ ദ സിങ്ങും ഞാൻ വായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ അത് ഫുൾ കൂടുതലും ഉള്ളത് റൊമാൻസാണ് അതുവെനിക്ക് അതേപോലെ ഇഷ്ടവാണ് വായിക്കാൻ പിന്നെ അതല്ലാതെ വേറെ റൈറ്റേഴ്സിൻറ്റേന്ന് പറയുമ്പം ജോൺ ഗ്രീൻന്റെ ബുക്കെനിക്കിഷ്ടമാണ് ജോൺ ഗ്രീന്റെ എനിക്കിഷ്ടമുള്ളത് ഏറ്റോം ഇഷ്ടമുള്ളത് അഫ്കോഫ് ഫോൾട്ട് ഇൻ ഔർ സ്റ്റാർസ്സ് തന്നെയാണ് എനിക്കതിന്റെ മൂവി വന്നപ്പോൾ ഒരാകാംക്ഷയായിരുന്നു കാരണം ഞാനിങ്ങനക്കെ മനസ്സിലാലോചിച്ച കഥാപാത്രങ്ങളിങ്ങനെ അഭിനയിക്കുന്നത് കാണുന്നത് അതെനിക്കിഷ്ടവാണ് പിന്നെ ജോജു മോയിസിന്റെ മീ ബിഫോർ യു അത് ആ ബുക്കാണ് സിനിമയാക്കിയപ്പം എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനുണ്ടായിരുന്നു കാരണം അതേപോലെ എടുത്ത് വച്ചേക്കുന്നൊരു സിനിമ തന്നെയായിരുന്നു അപ്പം കഥാപാത്രങ്ങളും ഓരോ സീനും എല്ലാം സെയിമായിരുന്നു അപ്പോൾ അങ്ങനെ ആ ബുക്കും എനിക്കിഷ്ടമാണ് എനിക്കിങ്ങനെ ബുക്ക് സിനിമയാക്കുന്നതിനോട് വലിയ താല്പര്യവില്ല കാരണം അവരിങ്ങനെ ക്യാരക്റ്റേഴ്സിന് വേണ്ടി ജസ്റ്റിസ് കൊണ്ടുവരാറില്ല ചിലപ്പം ഒരു സീനക്കെ അങ്ങ് മാറ്റും അപ്പോൾ അങ്ങനക്കെ ഇഷ്യൂസ്സ് വരാറുണ്ട് പക്ഷേ എന്നാലും ചില സമയവെനിക്കത്തിന്റെയൊരു വിഷ്വൽ ഡെപ്പിക്ഷൻ കിട്ടുമ്പം ഒരു പ്രത്യേക സന്തോഷമുണ്ട് പിന്നെ എനിക്കിപ്പം മലയാളം റൈറ്റേർസിലോട്ട് വരുന്നെങ്കിൽ ഒരുപാട്പേരുടെ റൈറ്റിങ്ങിഷ്ടവാണ് ഇപ്പം മാധവിക്കുട്ടീടെ ആണെങ്കിൽ വളരെ ഇഷ്ടവാണ് കാരണം അതേപോലത്തെ ആശയങ്ങളും കാര്യങ്ങളും എല്ലാമുണ്ട് ഇപ്പം എനിക്കെനിക്ക് എനിക്ക് തോന്നുന്നു എനിക്കേറ്റോം കൂടുതലിഷ്ടപ്പെട്ടത് നവാനി എന്നുള്ള ആ ബുക്കാണെന്ന് തോന്നുന്നു കാരണം അതിൽ പറയുന്നത് താഴ്ന്ന ജാതീലുള്ളൊരു സ്ത്രീ ഒരു വലിയ ഒരു ഏറ്റോം അപ്പർ ക്ലാസായിട്ടുള്ള ഫാമിലീൽ

കൂടിയ ജാതീലുള്ള ആൾക്കാർ ഇവരിങ്ങനെ ബുദ്ധിമുട്ടിയ്ക്കേം അവരിങ്ങനെ അബ്യൂസ് ചെയ്യയേം സെക്ഷ്വലി അബിയൂസക്കെ ചെയ്ത് അവസാനം അവർ ഗർഭിണിയായ ശേഷം അവരെ ഉപേഷിക്കുന്ന ഒരു കഥയാണ് അവസാനം ഗതികെട്ട് അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഒരു കഥ അപ്പം ആ കഥയിൽ നമുക്കാ കാലത്തെ കേരളത്തിന്റെ ഒരു ഒരു ഒരു ചിത്രം കിട്ടും അപ്പോൾ അങ്ങനെനിക്ക് അങ്ങനത്തെ ബുക്കുകളിഷ്ടമാണ് പിന്നതുപോലെ ലളിതാംമ്പിക അന്തർജ്ജനം അവരുടെ റൈറ്റിങ്സും എനിക്ക് വളരെ വളരെ ഇഷ്ടമുള്ളൊരു ഒരു എഴുത്തുകാരിയാണ് ലളിതാംമ്പിക അന്തർജനം എനിക്ക് അവരുടെ എനിക്ക് ഏറ്റോം ഇഷ്ടപ്പെട്ട ഒരു ബുക്കെന്ന് ചോദിച്ചാൽ അത് പ്രതികാര ദേവതയാണ് അതും ഇതേപോലത്തെ ഒരു പഴയ കേരളത്തെ ഒരു ഡെപ്പിക്ഷനാണ് കാണുന്നത് കാണിക്കുന്നത് ഒരു നായർ കുടുംമ്പത്തിൽ ജനിച്ച് നമ്പൂതിരി കുടുംമ്പത്തിൽ ജനിക്കുന്ന ഒരു സ്ത്രീക്ക് ഇത്രയും നമ്മുടെ സൊസൈറ്റീലൊരപ്പർ ക്ലാസാണെങ്കിലും സ്ത്രീകൾ എന്നാലും ഏത് അപ്പർ ക്ലാസ്ലെ എത്ര അപ്പർ ക്ലാസാണെന്ന് പറഞ്ഞാലും എല്ലാ വിഭാഗത്തിപ്പെടുന്ന സ്ത്രീകളും അന്നത്തെ കാലത്ത് മൈനോരിറ്റി തന്നെയാണ് അപ്പം ആതിന്റെ ഒരു കഥ അതിലും എനിക്ക് തോന്നുന്നു ആ കഥയും പറയുന്നത് സ്ത്രീകൾക്കൊരു സ്വന്തമായിട്ടൊരു വോയിസില്ല അവരിങ്ങനെ താഴ്ന്നിട്ടേയ്ക്കാണ് അപ്പം അതിലും ഒരു അവരുടെ ഭർത്താവ് വേറൊരു സ്ത്രീയിനെ ഒരു ശാരീരിക ബന്ധം വെച്ചിട്ട് ഇവരെ അതുമായിട്ട് തുൽ ഒരു ഒരു കമ്പാരിസൺ നടത്തി അപ്പം അതിന്റെ ഇതിൽ ഇവർ ആ വീടുവിട്ട് പോവുകയും പിന്നവരൊരു ഒരു പ്രതികാരം പോലെ ഇങ്ങനെ ഒരു അങ്ങനൊരു ലൈഫ് സ്റ്റൈലെടുത്തു എന്നിട്ട് അവരുടെ ഹസ്ബൻറ്റിനെ ഒരു പ്രൂവ് ചെയ്യുന്ന പോലത്തെ ഒരു കഥയൊക്കെയായിട്ട് പ്രതികാര ദേവത എനിക്കിഷ്ടമുള്ളൊരു ബുക്കാണ് പിന്നെ അതുപോലെ എനിക്ക് വേറെ ഇഷ്ടമുള്ള ബുക്ക് വേരുകൾ വേരുകളെനിക്ക് ഇഷ്ടമാണ് അതുമിങ്ങനെ എല്ലാമെനിക്ക് എനിക്ക് കൂടുതലിഷ്ടം ഇങ്ങനെ പഴയ കാലങ്ങളിലെ കഥ കാണിക്കുന്നത് കാരണം ഇപ്പോഴത്തെ കാലത്തൊക്കെ കേരളം നമുക്കറിയാമല്ലോ പക്ഷേ പണ്ടത്തെ കേരളം നമുക്കറിയില്ല അപ്പോൾ എനിക്കാ പണ്ടത്തെ കഥകൾ കാണാൻ കേൾക്കാൻ ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് അതുകൊണ്ടു കൂടെയാണ് എനിക്ക് തോന്നുന്നു എനിക്കതുപോലത്തെ ഇത് ബുക്ക്സ് വായിക്കാനിഷ്ടം അപ്പം ഇപ്പം ഇപ്പോൾ ഞാൻ പറഞ്ഞപോലെ വേരുകൾ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ബുക്കാണ് വേരുകൾ കാരണം എനിക്ക് തോന്നുന്നു അതിൽ നമ്മുടെ സൊസൈറ്റീലപ്പം ഉണ്ടായ ചേയ്ഞ്ചിനെപ്പറ്റിയാണ് ആ ബുക്ക് കൂടുതൽ സംസാരിക്കുന്നത് അപ്പോളതിലേറ്റോം കൂടുതലെനിക്ക് തോന്നുന്നു പറയുന്നത് ആൾക്കാർ അവരുടെ നാട്ടിൻ പ്രദേശോം അവരുടെ റൂട്ട്സും അതാണ് ഈ വേരുകൾന്നുദ്ദേശിക്കുന്നത് ആ വേരുകൾ വിട്ട് അവർ പുതിയ പുതിയ കാര്യങ്ങളിലോട്ട് പോകുന്നൊരു കഥയാണിത് അവരുടെ നാടും വീടും അവരുടെ ഒരു കൾച്ചറും കസ്റ്റമും ട്രഡീഷനും വിട്ടിട്ട് വേറൊരു സിറ്റീലോട്ട് മൂവ് ചെയ്യുമ്പോൾ അവർക്കുണ്ടാവുന്ന മാറ്റങ്ങൾ അത് പല രീതീലവരെ എന്താണ് ഇൻഫ്ലുവസ്സ് ചെയ്യുന്ന രീതിയിൽത്തന്നെയാണ് കഥ പോകുന്നത് അപ്പം ഇപ്പം അതിൽ എനിക്ക് തോന്നുന്നു മെയിൻ ക്യാരക്റ്ററിന്റെ പേര് മെയിൻ ക്യാക്റ്ററായ രാഘവനാണെന്ന് തോന്നുന്നു രാഘവൻ രാഘവൻ വീട് വിട്ടിട്ട് ഭാര്യ നല്ലൊരു മോഡേൺ സിറ്റീൽ താമസിക്കുന്ന ഭാര്യ ഭാര്യയുമായിട്ട് അങ്ങോട്ടേക്ക് മാറുന്നു അപ്പം വീട്ടുകാർ ഇവിടെ തിരിച്ച് നാട്ടിൽത്തന്നെ നിൽക്കുന്നു അവരുടെ വീടും അവരുടെ സ്ഥലവും അവരുടെ ദാരിദ്ര്യവും എല്ലാമായിട്ട് അപ്പം രാഘവന് അതാ ഒരു ബാലൻസ്സ് കൊണ്ടുവരാൻ പറ്റുന്നില്ല അയാളുടെ ഇപ്പോഴത്തെ ലൈഫും പഴയ ലൈഫുവായിട്ട് പക്ഷേ ഇപ്പോഴത്തെ അവരുടെ ജീവിതോം അയാൾക്കിമ്പോട്ടൻറ്റാണ് കാരണം കുട്ടികൾ വലുതാവുന്നു അയാൾ ഒരു ഐ എ എസഫീസറാണ് പിന്നെ ഭാര്യയുണ്ട് അവർ വലിയ വലിയ സ്വപ്നങ്ങളുമായിട്ട് നിൽക്കുന്ന ഒരാൾക്കാർക്ക് അവരുടെ തിരിച്ച് നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതൊന്നും ഈ പറഞ്ഞ സ്വപ്നങ്ങളൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കഥയുമായിട്ടാണ് വേരുകൾ പക്ഷേ അത് വായിക്കുമ്പോൾ നമുക്ക് പല അതിൽ തന്നെ പിന്നെ ഇവരുടേയും ഈ ഫ്ലാഷ് ബാക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കൊച്ചുന്നാളും അങ്ങനെയെല്ലാം നമുക്ക് വായിക്കാൻ പറ്റും പണ്ട് സ്കൂളിപ്പോയ കഥകളും അച്ഛനുവായിട്ടുമുള്ള ഒരു ബന്ധം ചേച്ചിമാരായിട്ടുള്ളൊരു ബന്ധം അങ്ങനെ ഇങ്ങനെ പോകും പിന്നെ അല്ലാതെ അവിടെ എന്തുകൊണ്ടി മോഡേൺ സിറ്റി ഈ ഗ്രാമപ്രദേശോം കാട്ടി ബെറ്ററാണ് എന്ന് പറയുന്നത് പോലത്തെ ഒരു കമ്പാരിസനും നടത്തീട്ടുണ്ട് കാരണം ഇവിടെ ആൾക്കാർ ഇങ്ങനെ പ്രത്യേകിച്ച് എയിമൊന്നുവില്ല ക്രൈംസ്സ് നടക്കുന്നു മീൻസ് അയാളുടെ അനന്തരവനെ ഒരു പട്ടി കടിക്കുന്നു ആ കുട്ടി ഇങ്ങനെ മരിക്കുന്നു അങ്ങനെ ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഇല്ലാതെയാകുന്നു ഇപ്പം ഒരു കു റച്ച് മെന്റലി അൺസ്റ്റേബിളായ ഒരാൾ കൂടെ നോക്കാൻ നിന്ന ആളെ കൊന്ന് സ്വന്തമായിട്ട് ചാവുന്നു അങ്ങനെയൊക്കെ ഒരുപാട് കഥകളിൽ പറയുന്നുണ്ട് അപ്പം അവർക്ക് അതിൻറ്റേതായ ഫെസിലിറ്റീസൊ ഇൻഫ്രാസ്ട്രക്ടറൊ ഈ ഗ്രാമപ്രദേശത്തിലില്ല അപ്പം എങ്ങനെയാണ് ഈ കുട്ടികളേം എല്ലാം ഭാര്യേമായിട്ട് ഇങ്ങോട്ട് നിൽക്കുന്നത് അല്ലാതെ ഇയാളുടെ വളർച്ചേം അത് ബാധിക്കും അങ്ങനെ അയാളൊരു ടഫ്ഫ് ഡിസിഷൻ ടഫ്ഫ് സ്പോട്ടിൽ പെട്ട ഒരു ഡിസിഷൻ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കേണ്ട ഒരവസ്ഥയിൽ വരുന്നൊരു കഥയാണ് വേരുകൾ പിന്നെ അതുപോലൊരുപാട് റൈറ്റേഴ്സൊണ്ട് ഇപ്പോൾ എം ടി വി ആണെങ്കിലും എം ടി വി അത്പോലെ ഒ എൻ വി കുറുപ്പ് എല്ലാവരും നല്ല നല്ല കഥകളുണ്ട് ഇപ്പം എം ടി വാസുദേവൻ നായരുടെ പറയുന്നെയാണെങ്കിൽ എനിക്കിപ്പം ഇഷ്ടമുള്ളത് ഓപ്പോളാണ് അതും ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പഴയ കേരളയിലെ കഥകൾ കേൾക്കാൻ ഭയങ്കരിഷ്ടമാണ് അതിതുപോലൊരു പഴയ സെറ്റപ്പിലെ കഥയാണ് അപ്പം ഇങ്ങനെ കഥകൾ കേൾക്കുമ്പം ഇങ്ങനെ ജീവിതം വെച്ചുള്ള കഥകളാകുമ്പോൾ എനിക്കത് കൂടുതലിഷ്ടമാണ് വായിക്കാൻ അപ്പോൾ ഇപ്പം ഇപ്പോൾ ഓപ്പോളാണെങ്കിൽ അതും ഇങ്ങനൊരു ഇത ഒരു ഒരു കൊച്ചു കുട്ടി കല്യാണത്തിന് മുന്നെ ഒരു ബന്ധത്തിലേർപ്പെടുന്നു അതിലൊരു കുട്ടിയുണ്ടാവുന്നു അപ്പോൾ സൊസൈറ്റീലിറങ്ങി പോവുമ്പോൾ ഇവർക്കൊരു സ്ഥാനമില്ല അല്ലെങ്കിലിവരെ സൊസൈറ്റി അംഗീകരിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ ഈ കുട്ടീനെ അങ്ങനെ തന്നെയാണ് കാണുന്നത് അപ്പം അവിടെ അവർ കുറച്ച് മാറ്റങ്ങളുണ്ടാക്കുന്നു ഈ കുട്ടീടെ ഈ അമ്മ തന്നെ ഓപ്പോളായി മാറുന്നു ഇതിപ്പം എനിക്ക് തോന്നുന്നു അങ്ങ് വടക്കേ കേരളത്തിൽ അല്ലെങ്കിൽ മദ്ധ്യകേരളത്തിൽ നടക്കുന്നൊരു കഥയാണ് അപ്പം അവിടെ അവർ ചേച്ചീനെ ഓപ്പോളെന്ന് വിളിക്കുന്നത് അപ്പം ആ ഓപ്പോളിന്റമ്മ ഇ ഈ ഇപ്പം ഇപ്പം ഇൻ റിയാലിറ്റി അപ്പൂടെ അമ്മയാണ് ഈ പറയുന്ന ഓപ്പോൾ പക്ഷേ സൊസൈറ്റീടെ ആ ഒരു സമയത്തെ ഒരു രീതി കാരണം അവർക്കിത് പുറത്തുവിടാൻ പറ്റീല്ല അങ്ങനെ അപ്പൂന് അമ്മ ഓപ്പോളുവായി ഓപ്പോൾടെ അമ്മ എന്നുവെച്ച അമ്മൂമ്മ വല്യമ്മയുമായി അങ്ങനെ ഒരു കഥ പക്ഷേ അതിന്റെ അവസാനമാണ് എനിക്ക് ഏറ്റോം കൂടുതൽ എനിക്ക് വിഷമമുണ്ടാക്കിയത് കാരണം ഇങ്ങനെ ഓപ്പോളെന്ന് വെച്ചാൽ അപ്പൂന് ജീവനാണ് അപ്പം ഇങ്ങനെ ഓപ്പോൾനെ പിടിച്ച് നടക്കുന്ന ഒരു കുട്ടിയായിരുന്നു അപ്പു പക്ഷേ എന്തു പറയാൻ വീട്ടുകാർ ഓപ്പൊൾനൊരു കല്യാണവാലോചിച്ചു അങ്ങനെ ഇത് അപ്പു അറിയുന്നില്ല പക്ഷേ ഈ കാര്യങ്ങളൊന്നും അപ്പം അങ്ങനെ ഒരു ദിവസം അപ്പു സ്കൂൾലൊ മറ്റൊ പോയപ്പോഴാണ് ഓപ്പോളിന്റെ കല്യാണം അവർ മീൻസ് ഇവരോൾറെഡി പറഞ്ഞ് ഉറപ്പിച്ച കാര്യങ്ങളാണ് അപ്പം അപ്പു ഒരു ദിവസം സ്കൂളിൽ പോയപ്പം ഓപ്പോളിനെ കല്യാണം കഴിപ്പിച്ച് വിട്ടു അപ്പൂ തിരിച്ച് സ്കൂള് കഴിഞ്ഞു വരുമ്പോൾ ഓപ്പോളവിടില്ല അപ്പം അങ്ങനക്കെയൊരു ഇ ഒരു ഇതുണ്ടാവുന്നു അപ്പൂന് കാരണം അപ്പു വിചാരിച്ചൊരു ലൈഫേ അല്ല അത് അപ്പൂനെല്ലാവരും വേണം എല്ല അമ്മ വേണം പക്ഷേ ഇങ്ങനൊരവസ്ഥ ഉണ്ടായോണ്ട് സൊസൈറ്റി ആ സമയം അങ്ങനായോണ്ട് അവർക്ക് ഒരു അമ്മേനെ കുട്ടീന്ന് മാറ്റേണ്ടി വന്നു അപ്പോൾ ഓപ്പോളങ്ങനെ ഒരു ഹാർട്ട് ടച്ചിങ് സ്റ്റോറിയായിരുന്നു അതുപോലെ ഹാർട്ട് ടച്ചിങ് സ്റ്റോറീന്ന് പറയുമ്പോൾ ഏറ്റോം കൂടുതൽ ഞാൻ റീസെൻറ്റായിട്ട് വായിച്ചതാണ് എന്റെ കൂടെയുള്ളൊരു എപ്പോഴും ഞാൻ വായിക്കുന്നൊരു ബുക്ക് തന്നെയാണ് ഖാലിദു സീനി ഖാലിദു സീനീടെ റൈറ്റിങ്സെനിക്ക് ഭയങ്കര ഇഷ്ടവാണ് എനിക്കേറ്റോം കൂടുതലിഷ്ടം തൗസൻറ്റ്സ് പെന്നിസനാണ് കെയ്റ്റ് റണ്ണറും അതുപോലെ ഇഷ്ടമാണ് പക്ഷേ എന്നെ ഏറ്റോം കൂടുതൽ ടച്ച് ചെയ്ത ബുക്ക് തൗസൻറ്റ്സ് പെന്നിസാനാണ് അപ്പം ഈ രണ്ട് ബുക്കും പ ഞാൻ പറഞ്ഞ രണ്ട് ബുക്കും അഫ്ഗാനിസ്ഥാനിലെ അതും ഇങ്ങനെ പഴയത് ആണ് എനിക്ക് പഴയ കാലങ്ങൾ വായിക്കാനാണിഷ്ടം അതുകൊണ്ടാണ് ഞാനെപ്പോഴും അങ്ങനത്തെ ബുക്സ് വായിക്കുന്നത് അതും പഴയ കാലവാണ് പറയുന്നത് അവർ വാറ് നടന്ന സമയോം എല്ലാമായിട്ട് അപ്പം ആ സമയം താലിബാൻല് താലിബാൻ വന്നതും അതിന് മുമ്പെയും ഉള്ള എല്ലാ കഥകളും സോവീറ്റ് റൂൾ ചെയ്തപ്പോൾ ഉള്ള അങ്ങനെയുള്ള എല്ലാ കഥകളും അപ്പം തൗസൻഡ് സ്പെൻറ്റിൻസൻസിങ്ങനെ വായിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായത് കാരണം ആൾക്കാർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ അതായത് ഇതിപ്പം ഒരു ഫിക്ഷ്ണൽ സ്റ്റോറിയാണെങ്കിൽക്കൂടി ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടാവാം അവിടെ ഒരു സ്ത്രീക്ക് ഒരു പതിനഞ്ച് വയസ്സിൽ കല്യാണം കഴിഞ്ഞുപോയി അതൊരു മുതിർന്നൊരു മനുഷ്യനുവായിട്ട് പിന്നെ ഒരു ഒരു ഹാപ്പി ലൈഫൊണ്ടാവുന്നില്ല ത്രൂ ഔട്ട് ലൈഫവർക്കിങ്ങനെ സഫർ ചെയ്ത് ജീവിക്കേണ്ടിവന്നു എന്നിട്ട് അവസാനം ഒരു ഒരു സമാധാനവില്ല അച്ഛനേം കണ്ടില്ല അങ്ങനെയൊക്കെ വന്ന് അവസാനം അവർക്ക് അവർ മരിക്കുന്നു അങ്ങനത്തെ ഒരു കഥ തൗസൻഡ് സ്പ്ളെൻഡിഡ് സൺസ് ഞാൻ എക്സ്പ്ലെയ്ൻ ചെയ്യുന്ന പോലെയല്ല അത് വായിക്കണം വായിച്ചാലേ അത് മനസ്സിലാവു അതുപോലെതന്നെയാണ് കൈറ്റ് റണ്ണറും ഈ കഥകളൊന്നും ഇപ്പം ഞാൻ പറഞ്ഞ ഒരു കഥകളും എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് ഇങ്ങനെ സമ്മറി പറയുന്നത് കഥയുടെ കാരണം ആ ഒരെസൻസ്സ് കിട്ടില്ല എത്ര പറഞ്ഞാലും അത് വായിച്ചാലെ മനസ്സിലാവു ബുക്സ്സ് വായിക്കേണ്ടതാണ് എല്ലാ ബുക്കും വായിക്കുക എനിക്കിത് പറഞ്ഞു പോകുന്നു പറയുന്നത് അന്നൊരു ദിവസം ഞാൻ നിക്കൊളാസ് പാർക്കിന്റെ ഒരു ബുക്ക് വായിച്ചിരുന്നു വാക് ടു റിമെബർ അതെനിക്ക് നല്ലിഷ്ടവുള്ളൊരു ബുക്കാണ് അപ്പം എന്റെ ഫ്രെണ്ടെന്റെ സമ്മറി പറഞ്ഞു തരാവോന്ന് ചോദിച്ചു എനിക്ക് എനിക്ക് പറ്റാത്തൊരു കാര്യവാണ് സമ്മറി പറയുന്നത് അപ്പം ഏത് ബുക്കാണെങ്കിലും വായിക്കണം ഇപ്പോൾ ബയോഗ്രഫിസാണെങ്കിലും ഓട്ടോബയോഗ്രഫീസാണെങ്കിലും വായിക്കണം കാരണം അതിൽ നിന്ന് എനിക്കിങ്ങനെ ഒരോ ആൾക്കാരുടെ കഥകൾ അവരുടെ ജീവിതം നമുക്ക് മനസ്സിലാവും ഇങ്ങനുള്ള ഓട്ടോബയോഗ്രഫീസ് വായിച്ചു കഴിയുമ്പോൾ അതേറ്റോം നല്ലൊരു കാര്യമാണോട്ടോബയോഗ്രഫീസ് വായിക്കുക എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ അത് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല ആൾക്കാരെന്തക്കെ ഹൈറ്റ്സിലാണെത്തുന്നത് ഇപ്പോൾ ആൻ ഫ്രാങ്കിന്റെ ഡയറിയാണെങ്കിലും സ്റ്റോറി ഓഫ് മൈ ലൈഫ് ഹെലൻ കെല്ലർന്റെ അതൊക്കെ വായിക്കുമ്പോൾ നമുക്കാൾക്കാരുടെ ആ കാലത്ത് അൽ ഫ്രാങ്കക്കെ ഏത് കാലത്തിലുള്ള വേൾഡ് വാറിന്റെ സമയമുള്ള ആൾക്കാരാണ് അപ്പോൾ അവിടെ നടന്ന ഒരോ ഡീറ്റെയിലും അങ്ങനെ എല്ലാം നമുക്ക് അറിയാൻ പറ്റും ബുക്ക് വായിച്ച വായനാശീലം വർദ്ധിപ്പിക്കണം അതുവഴി നമക്കൊരുപാട് കാര്യങ്ങളറിയാം ഇപ്പം അടുത്തൊരു പറവ ഇരിക്കുവാണ് ഇപ്പം ഞാൻ നെറ്റിൽ നോക്കിയാലും അറിയാൻ പറ്റുവത് പക്ഷേ അവരാ മനസ്സ് അവരുടെ ആ അക്ഷരങ്ങൾ അവരുടെ മനസ്സിൽ നിന്ന് വാക്കുകൾ വരയ്ക്കുന്നതിലാണ് അതിലാ ഒരു പ്യൂരിറ്റീം ആ ഒരെസെൻസുവുണ്ട് അപ്പം അത് ഫുള്ളായിട്ട് കിട്ടണമെങ്കിൽ ബുക്ക് വായിക്കണം ഇതുപോലൊരു ഓട്ടോബയോഗ്രഫിയാണ് ജയശക്തീടെ ഓട്ടോബയോഗ്രഫി അതുമെനിക്കിതുപോലെ ഇഷ്ടമുള്ളതാണ് കാരണം അതെന്ന് വെച്ചാൽ ഒരു ടോട്ടൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരു ലൈഫാണ് ഒരിന്ത്യനൊർജിൻലെ ഒരാൾ പുറത്തോട്ട് പോകുന്നു എന്റെ കുട്ടിക്കാലം ഇങ്ങനെ പോകുന്നു പിന്നെ അയാൾ ആശ്രമങ്ങളിൽ പോകുന്നു സ്പിരിച്വാലിറ്റീൽ വരുന്നു പിന്നൊരു മങ്കാകുന്നു ഇപ്പം സന്യാസവെടുക്കുന്നു അതൊക്കെ അതൊരു പ്രത്യേക ലൈഫ് സ്റ്റൈല പക്ഷേ അപ്പം അയാളുടെ ലൈഫ് സ്റ്റൈലി മാറ്റങ്ങളുണ്ട് അപ്പം അതുവഴി അയാളൊരു ഗുഡ് കോസിന് വർക്ക് ചെയ്യുന്നു അങ്ങനങ്ങനെ വരുന്ന ബുക്ക്കൾ അപ്പം ബുക്ക് വായിക്കുന്നതക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യവാണ് ഞാനിപ്പം ഒരാൾ ഇങ്ങനെ പറയുന്നെങ്കിലും എല്ലാരേം എൻകറേജ് ചെയ്യും ബുക്ക് വായിക്കാൻ ബുക്ക് വായിക്കും വായിച്ച് വായിച്ച് വായിച്ചു നമുക്ക് പല കഥകളുവറിയാൻ പറ്റും നമുക്ക് ആൾക്കാരുടെ ജീവിതോം അറിയാൻ പറ്റും ലോകത്തിനെ പറ്റിയും നമുക്കൊരു ഒരു ഒരു നല്ലൊരു ചിത്രം കിട്ടും അപ്പം അത്രേയുള്ളു താങ്ക് യൂ